എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് ഫേസ് ക്രീം ആണ് ഫേസ് ക്രീമെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നല്ല അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് ആണ് കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ എവിടെങ്കിലും ഒന്ന് പുറത്ത് പോകുമ്പോൾ നമ്മൾ ഇപ്പോൾ വീട്ടിൽ ഇരിക്കുമ്പോൾ നമ്മുടെ കോലം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു മാതിരി വൃത്തികെട്ട കോലം ആയിരിക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമുക്ക് ഒന്നും അത്ര ഇതായിരിക്കില്ല പിന്നെ അതുപോലെതന്നെ നമ്മുടെ മുടി ഒന്നും നമ്മള് മര്യാദയ്ക്ക് കെട്ടില്ല നമ്മള് മുഖം ഒന്നും അങ്ങനെ വീട്ടിൽ നിന്നും നമ്മൾ എന്തായാലും മേക്കപ്പ് ഇട്ട് ഒന്നും നടക്കുന്നവരായിരിക്കില്ലല്ലോ നമ്മൾ ഒന്നും അപ്പൊന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നമ്മള് ഇപ്പോൾ പുറത്ത് ഒരു സ്ഥലത്ത് പോകുമ്പോൾ അതായത് നമ്മള് ഇപ്പോൾ കല്യാണത്തിനോ എൻഗേജ്മെൻറ്റിനോ സ്കൂളില് എന്തെങ്കിലും പരുപാടിക്കോ അങ്ങനെ എന്തെങ്കിലും സെലിബ്രേഷനോ കാര്യങ്ങൾക്ക് ഒക്കെ പോകുമ്പോൾ ക്രീമും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും നമ്മളില് ഒരു തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികളും അപ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് ക്രീം ഒക്കെ നമ്മള് അത്യാവശ്യം പൈസേൻറ്റെം കാര്യങ്ങളും ഒക്കെ നോക്കി മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ് കാരണം എന്താന്നു വെച്ചിട്ടുണ്ടെങ്കില് ഫേസ് ക്രീം ഒന്നും നമ്മൾ അങ്ങനെ ലോക്കൽ കാര്യങ്ങൾ ഒന്നും മേടിക്കാൻ പാടില്ല അത്യാവശ്യം നല്ല ഫേസ് ക്രീം മാത്രമേ നമ്മള് മേടി മേടിക്കാൻ പാടൊള്ളു അപ്പോൾ എന്നാലെ നമുക്ക് മര്യാദയ്ക്ക് അതിനുള്ള റിസൾട്ടും കാര്യങ്ങളും ഒക്കെ കിട്ടുള്ളു അപ്പോൾ ഫേസ് ക്രീം ഒക്കെ മേടിക്കുമ്പോൾ നോക്കി മേടിക്കുക അല്ലെങ്കിൽ നമുക്ക് വളരെ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഒരു ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് ക്രീം ഒക്കെ നല്ലതാണു നമ്മളെ നല്ല ഗ്ലോ ആക്കി വെക്കാനും നമ്മടെ വൈറ്റനിംഗ് സ്കിൻ വൈറ്റനിംഗിന് ഒക്കെ വേണ്ടി ഈ ഫേസ് ക്രീം ഒക്കെ നല്ലതാണ്